നമ്മുടെ അടുത്ത് ആർട്ട് സപ്ലൈസ് സ്റ്റോറുകളൊന്നുമില്ല എന്നാൽ നമ്മൾ സ്ഥിരമായിട്ട് സ്റ്റേഷനറി വാങ്ങിക്കുന്ന സാധനങ്ങളെന്നു പറയാണെങ്കിൽ പിന്നെ ടിഷ്യു ടിഷ്യു പേപ്പർ വാങ്ങിക്കാറുണ്ട് അതുപോലെ തന്നെ പെൻസിൽ പേന ഇങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങിക്കാറുണ്ട് സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ വാങ്ങിക്കാറുണ്ട് ഡിഷ് വാഷ് വാങ്ങിക്കാറുണ്ട് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മിക്കവാറും വാങ്ങിക്കാറുണ്ട് പിന്നെ കലയെന്നു പറയുമ്പോഴത്തേക്കു എനിക്കു പാട്ടു വളരെ ഇഷ്ടമാണ് ചെറുപ്പം മുതലേ പാട്ടിനോടു വലിയ താത്പര്യമുണ്ടായിരുന്നു പള്ളിയിലൊക്കെ പോകുമ്പോഴത്തേക്കും കൊയറിലൊക്കെ ഉണ്ടായിരുന്നു കൊയറിലൊക്കെ നമ്മൾ പാടാറുണ്ട് അത്യാവശ്യം കുറച്ച് പാടും നല്ല രീതിയിൽ പാട്ടു പാടാറുണ്ട് പിന്നെ എനിക്ക് ഡാൻസ് ഭയങ്കര ഇഷ്ടമാണ് ഡാൻസ് കളിക്കാറുണ്ട് പിന്നെ കരകൗശലത്തിൽ കരകൗശലമെന്ന രീതിയിൽ ഈ ചിരട്ട കൊണ്ട് ഉള്ള സാധനങ്ങൾ ചിരട്ട വാങ്ങിച്ചു പുതിയ പുതിയ സാധനങ്ങൾ ഇതുപോലെ ഉപയോഗിക്കാറ് പറ്റ ഇഷ്ടമാണ് പിന്നെ അതുപോലെ വേസ്റ്റ് കുപ്പി കാര്യങ്ങൾ കൊണ്ടെനിക്ക് കൂടുതൽ സാധനങ്ങൾ വാങ്ങിച്ച് ഉപയോഗിക്കാനായിട്ട് അതും എനിക്കു വളരെ താത്പര്യമാണ് പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ സാധനങ്ങൾ കൊണ്ടൊക്കെ ഓരോ ഭംഗിയിൽ പിന്നെ കുപ്പി പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പി കൊണ്ട് അതിങ്ങനെ കട്ട് ചെയ്തിട്ട് പൂ പോലെയൊക്കെ ഫ്ലവറൊക്കെ ഉണ്ടാക്കാനതും എനിക്കു വളരെ ഇഷ്ടമുള്ള കാര്യമാണ് പിന്നെ ഈ തുണിയൊക്കെ വെട്ടി നല്ല രീതിയിലുള്ള ഫ്ലവർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാനുണ്ടാക്കാറുണ്ട് പിന്നെ ചകിരി കൊണ്ട് എന്തായിരുന്നു കരകൗശല സാധനങ്ങൾ ഉണ്ടാക്കാറുണ്ട് പിന്നെ വൈക്കോൽ കൊണ്ടും ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട് പിന്നെ നെയ്ത്തു നെയ്യുന്ന സാ അതുമൊക്കെ എനിക്കു വളരെ ഇഷ്ടമായിട്ടുള്ള കാര്യമാണ് പിന്നെ അങ്ങനെ കലയും കരകൗശലവും ഒക്കെ ഓരോ രീതിയിൽ കൊണ്ടു പോകുന്നു